നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട ഒരു മേഖലയാണെന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടി നമ്മൾ പുസ്തകങ്ങളിൽ നിന്നു മാറി കുഞ്ഞു കുട്ടികൾക്ക് കുറച്ചു കൂടി ജോബ് ഓറിയൻ്റടായിട്ടുള്ള അവർക്കുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്കൊരു ജോലിയിലേക്കു പ്രവേശിക്കുവാൻ തക്കതായിട്ടുള്ള കുറച്ചൊക്കെ വിദ്യാഭ്യാസം നമുക്ക് അവർക്ക് കൊടുക്കുവാനും സാധിക്കണമെന്നുള്ളതാണ് പ്രധാന ഒരു എന്തൊക്കെയാണെന്നു ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അവരെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിലാണ് അവർക്ക് കുറച്ചും കൂടി പഠിക്കാനും താൽപ്പര്യം ക് കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യത്തിനായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ത്യയിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ തന്നെ വളരെ കേരളമൊഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് പുറത്തോട്ടു പോയി ഒരു കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതു ഭാഷ പഠിപ്പിക്കുന്നതിനകത്തായാലും ഇംഗ്ലീഷൊക്കെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നതിൻറ്റിതിലൊരുപാട് പിന്നോക്കമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ മാറിയിട്ട് സ്കൂളുകളിൽ നല്ല പോലെ ഭാഷ ഹാൻഡിൽ ചെയ്യാൻ അതു സ്വന്തം മാതൃഭാഷ എന്നതിനേക്കാൾ കുറച്ചു കൂടി നമ്മുടെ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ കുറച്ച് കൂടിയൊക്കെ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് അത് ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് പ്രയോജനം ചെയ്തില്ലെങ്കിലും ഭാവിയിലവർക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് നമുക്ക് അതു കഴിയും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു